മെയിനായിട്ട് സർക്കാർ സ്കൂളും സ്വകാര്യ സ്കൂളും തമ്മിലുള്ള വ്യത്യാസ സർക്കാർ സ്കൂളിൽ ഫീസ് കൊടുക്കേണ്ട സ്വകാര്യ സ്കൂളിൽ ഫീസ് കൊടുക്കണം സ്വകാര്യ സ്കൂളിൽ ഫീസ് ഭയങ്കര സാമ്പത്തിക ഭാരം മാതാപിതാക്കളിൽ ഒരുപാട് അടിച്ചേൽപ്പിക്കുന്നു സർക്കാർ സ്കൂളുകളിൽ അതില്ല ഒരുപാട് സൗജന്യ സർക്കാർ പദ്ധതികളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് സർക്കാർ സ്കൂളിലൂടെയാണ് പ്രൈവറ്റ് സ്കൂളിലെ മെയിനായിട്ട് സിലബസ്സൊക്കെ ആണെങ്കിലും ഓരോ വ്യക്തികളുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടിങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളുണ്ടാകും പക്ഷേ സർക്കാർ സ്കൂളിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സിലബസ് അനുസരിച്ചുള്ള പാഠ്യേ പഠനങ്ങളും പാഠേതര പദ്ധതികളും ആണ് ആവിഷ്കരിക്കുന്നത് പഠനത്തെക്കാൾ പഠനത്തോടൊപ്പം മറ്റു മേഖലകളിലും മി മികവു പുലർത്തുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ സർക്കാർ സ്കൂളുകളിൽ നൽകുന്നു പക്ഷേ സ്വകാര്യ സ്കൂളുകളിൽ പാ പലതും പഠനത്തിനും അക്കാഡമിക്കും ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാർക്കിനു വേണ്ടി മാത്രം പഠിക്കുന്ന പിള്ളേരായി ചുരുങ്ങിപ്പോകുന്നുണ്ട് അദ്ധ്യാപകരുടെ എക്സ്പീരിയൻസാണെ പോലും മറ്റേത് അദ്ധ്യാപകരുടെ എക്സ്പീരിയൻസിനു പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ സർക്കാർ സ്കൂളിലെ അദ്ധ്യാപകർ എക്സ്പീരിയൻസും അവർ വളരെ എഫിഷ്യൻറ്റും കഴിവുള്ള ടീച്ചേഴ്സാണ് സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്